ഹലോ ഗ്രാമീൺ ഗ്രാമീൺ ബാങ്കല്ലേ ആ ഹലോ സാറേ എനിക്ക് ഒരു വൺ ലാക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഒരു സ്വയം തൊഴിൽ ആ ഒരു ചെറിയൊരു ഫാമ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ അപ്പോൾ അതിന് എങ്ങനെയാണ് ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒന്നും അറിയാൻ വേണ്ടിയായിരുന്നു പലിശ എങ്ങനെയാണ് പന്ത്രണ്ട് ശതമാനമോ എത്ര ലക്ഷം രൂപയ്ക്കാണ് ആഹാ എനിക്ക് ഇപ്പോൾ ഒരു രണ്ടു ലക്ഷം രൂപയുടെ ആവശ്യമാണുള്ളത് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് രേഖകളെന്താണ് വേണ്ടത് ഡീറ്റൈൽസും ആഹാ പാൻകാർഡിൻ്റെ ആവശ്യമുണ്ടോ ഇതിന് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗോൾഡ് ലോണാണ് എടുക്കുന്നതിൻ്റെയോ ഗോൾഡ് ലോൺ ആണെങ്കിൽ നമുക്ക് പവനിന് എത്ര കിട്ടും ഒരു പവന് നമുക്കൊരു ഇരുപത്തി നാല് അങ്ങനെയൊക്കെ കിട്ടുമോ സാറേ ആണോ ആ ആ ആ പിന്നെ ഒന്നുകൂടിയൊന്ന് നമുക്കതിൻ്റെ ഇൻട്രെസ്റ്റെ കാർഷിക ലോണാണെങ്കിൽ എത്രയാണ് വരുന്നത് എത്ര പെർസെൻ്റേജ് വരും ആണോ ആ ആ ബിസിനസ്സ് ലോണാണ് ബിസിനസ്സ് ലോൺ ആണെങ്കിൽ

സ്കീം അനുസരിച്ച് മാറ്റം വരുന്നു ആ ഓക്കെ അപ്പോൾ എപ്പോഴായിരിക്കും ബാങ്കിലേക്ക് വരേണ്ടത്